ഹലോ പാൻ കാർഡ് ഹെൽപ് ലൈൻ അല്ലേ ഞാൻ പാൻ കാഡിനെ അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു പതിനഞ്ച് ദിവസം കഴിഞ്ഞു എനിക്കിതുവരെ പാൻ കാർഡ് ലഭിച്ചിട്ടില്ല എൻ്റെ പാൻ കാഡിൻ്റെ ആപ്ലിക്കേഷൻ്റെ അപ്ഡേറ്റ് സ്റ്റാറ്റസിനെപ്പറ്റി അറിയുന്നതിനായിട്ടാണ് ഞാൻ വിളിച്ചത് രസീത് നമ്പറ് എ സി ആർ എട്ട് അഞ്ച് പൂജ്യം ആറ് രണ്ട് മൂന്ന് നാല് രണ്ട് അഞ്ച് ആറ് ജനന തീയതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് പൂജ്യം എട്ട് പതിനൊന്ന് ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറയാമോ ഓക്കെ സർ ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ ഇനി എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ടോ ഇല്ല സാർ ഓക്കെ വിവരങ്ങൾ നൽകിയതിന് നന്ദി സർ താങ്ക് യൂ